ഹലോ ആ ആരായിരുന്നു അതേലോ ആ ആരാണ് വിളിക്കുന്നത് അഹ് അഹ് ആ അഹ് ആ ഇവിടെ ഉണ്ടല്ലോ ആ നിങ്ങളെ എത്ര രൂപാ ബഡ്ജറ്റിൻ്റെ എത്ര രൂപ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് രൂപായ്ക്കല്ലേ പിന്നെ ഒരു രണ്ട് മുറി ആ കൂടുതലാവും ഇരുപത്തഞ്ച് രൂപയ്ക്കൊന്നും നമുക്ക് മെയിൻ റോഡിനടുത്തെങ്ങും കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കത്തില്ല ഇച്ചിരി ഉള്ളിലൊട്ടെ കിട്ടത്തുള്ളൂ അഹ് അഹ് ഒക്കെ ഉണ്ടായിരിക്കണം ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ആ നമുക്ക് അത് കിട്ടും പിന്നെ ആ നമുക്ക് ഇപ്പം ഒരു മെയിൻ റോഡിനടുത്തിറങ്ങും കിട്ടത്തില്ലന്നേ ഉള്ളു ഉള്ളിലോട്ട് വഴി ഉണ്ട് ചെറിയ വഴി ആയിരിക്കും പിന്നെ വെള്ളോം പിന്നെ കറൻറ്റും അങ്ങനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ നമ്മുടെ ഉണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ എല്ലാ സൗകര്യം കിട്ടും പക്ഷേ റൂമിനോക്കെ ഇച്ചിരി വലിപ്പം കുറവായിരിക്കും എന്നുള്ളതാണ് മെയ്നായിട്ടും ഏ ആ അതുകൊണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലവും അതിനുപറ്റിയ വീടും കൂടെ നമുക്ക് ആ ഒപ്പിക്കാനായിട്ട് പറ്റും പിന്നെ വീട് പണിതത് കിടപ്പുണ്ട് ഇനി വീട് നിങ്ങൾക്ക് അതിനകത്ത് സ്ഥലത്തിനകത്ത് വീട് പണിയാനാണെങ്കിൽ അത് വന്ന് കണ്ടിട്ട് ഇവിടെ സെൻറ്റിന് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലോട്ട് ഇച്ചിരി നീങ്ങി ആണെങ്കിൽ സെൻറ്റിന് മുപ്പത് രൂപായ്ക്കും ഒക്കെ കിട്ടും ഇച്ചിരൂടെ കൊച്ച് വഴി അതായത് അഹ് അങ്ങാനാവുമ്പം വന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു വീട് പണിഞ്ഞ് വരുന്നത് നമുക്ക് കിടപ്പുണ്ട് അത് വന്ന് നോക്കിയിട്ട് അതാവുമ്പം ഒരു നാല് സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള സംവിധാനത്തിൽ കിടപ്പുണ്ട് ആ അത് കംപ്ലീറ്റ് പണിത് തീർന്ന കിടക്കുന്ന ഒരു വിടാണ് അത് വന്ന് നോക്കി ആ അത് വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്ക് അല്ല എങ്കിൽ നമുക്ക് അതിനടുത്ത് തന്നെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം സ്ഥലമായിട്ട് കിടപ്പുണ്ട് അവിടെ വന്ന് വീട് പണിയാനായിട്ട് നമുക്ക് പറ്റും അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് സ്പോട്ടിൽ തന്നെ സാധനങ്ങളിറക്കി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ തന്നെ പണിക്കാരുണ്ടെങ്കിൽ ആരേലും ഉണ്ടെങ്കിൽ അവരെ തന്നെ വിട്ട് ആ ഇവിടെ പണിക്കാരെ ഒക്കെ കിട്ടും ആ അങ്ങനെ അവരുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് സ്പോട്ടിൽ തന്നെ സാധനം ഇറക്കി നിങ്ങൾക്ക് തന്നെ പണിയിക്കാം അതിനും സൗകര്യമായിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അത് വേണ്ടി അത് ഒരു രണ്ട് മുറിയും ഒരു ചെറിയ ഹാൾ ചെറിയ ഒരു സിറ്റ് ഔട്ട് ആ അങ്ങനെ കിടക്കുന്ന ഒരു മുറിയാണ് വീടാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ വെള്ളത്തിനും നമുക്ക് സൗകര്യമുണ്ട് ഇപ്പം അവിടെ കുഴൽ കിണറുമുണ്ട് ആ അത് കോമണായിട്ട് കുഴൽ കിണർ കുത്തിയിട്ടുണ്ട് അതിനകത്തു നിന്ന് പൈപ്പ് ഇങ്ങനെ പിന്നെ കറണ്ടുമുണ്ട് അങ്ങനൊരു ആ വെള്ളം വറ്റത്തൊന്നുമില്ല വെള്ളം കയറുന്ന ഏരിയായും ഒന്നുമല്ല വെള്ളം വറ്റത്തുമില്ല അതിനു പറ്റിയ ഒരു ആ പിന്നെ വണ്ടി മുറ്റത്ത് വരുന്നതാണ് അതിനുള്ള സൗകര്യമുള്ള റോഡും ചെറിയ റോഡും വലിയ വണ്ടി അങ്ങനെ മെയിൻ റോഡല്ല ചെറിയ റോഡ് അവിടെ സൗകര്യമുള്ളൊരു ആ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആയിക്കോട്ടെ വന്ന് ആ കാണൂ ശരി എന്നാൽ ഓക്കേ ആ ഓക്കേ